കഴിഞ്ഞ ദിവസം ഞാനൊരു ബോഡി വാഷ് മേടിച്ചു വളരെയധികം വില കൊടുത്ത് ഒത്തിരി റിവ്യൂകളുടെ അനുസരിച്ച് മേടിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷേ അത് ഉപയോഗിച്ചപ്പൊൾ തുടങ്ങി എന്റെ സ്കിന്നിനെല്ലാം റാഷസ് വരാൻ തുടങ്ങുന്നു കുരുക്കൾ വരാൻ തുടങ്ങുന്നു വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് ഞാൻ നേരിട്ടത് വളരെയധികം ചൊറിച്ചിലുകൾ വരെ അനുഭവപ്പെടാൻ തുടങ്ങി ആദ്യമൊക്കെ ആദ്യമൊക്കെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഇതുവരെ ഞാൻ ബോഡി വാഷ് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഇപ്പം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിൻറേത് ആണ് എന്ന് വിചാരിച്ച് ഞാനത് കണ്ടിന്യൂ ചെയ്തു എന്നാൽ ഒരാഴ്ച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചൊറിച്ചിൽ അസഹനീയമായിട്ട് എനിക്കൊരു ഡോക്ടർ സ്കിൻ ഡോക്ടറിനെ വരെ കാണേണ്ട അവസ്ഥയാണ് വന്നത് വളരെ വില കൊടുത്ത് മേടിച്ച സാധനമാണ് വളരെ മോശപ്പെട്ട അനുഭവമാണ് എനിക്ക് ആ ബോഡി വാഷിൽ നിന്നുണ്ടായത്